ഹലോ ആ ഹലോ ഞാനൊരു ടാക്സി കാര്യത്തിനായിട്ട് വിളിക്കുവാണ് ആ ഞാനിപ്പം കൊല്ലത്ത് നിക്കുവാണ് ചെറിയ ഒരു ബിസ്നസ് ടൂറിൻറ്റാവിശ്യത്തിനായിട്ട് വന്നതാണ് ആഹാ അപ്പ എനിക്ക് ഹോ ഹോട്ടൽ റാവിസ അവിടേക്കൊന്ന് ആക്ക് ആ പോകണം അവിടെ ആ ആ അതെയതെ കൊല്ലം റെയിൽവേ സ്റ്റേഷനി നിൽക്കുവാണ് ആ ആ ആ ആ ആ അത് അല്ലല്ല ബിസ്നസ് ടൂറിൻറ്റാവിശ്യത്തിനായിട്ട് പോയാൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് സിറ്റീലക്കെ കുറച്ച് ഒക്കെ പോകണം കുറച്ച് സ്ഥലങ്ങൾലക്കെ ആ കുറച്ച് സ്ഥലങ്ങൾലക്കെ ആ ആ ആ ഇല്ല അവിടെ വെയ്റ്റ് ചെയ്യണം വെയ്റ്റ് ചെയ്തിട്ട് എന്നെ ബീച്ചിൽ അവിടെ വെയിറ്റ് ചെയ്യണം പിന്നെ ഹോട്ടല് വെയിറ്റ് ചെയ്യണം അത് പെട്ടന്ന് തീ ബിസ്നസ്ന് അതായത് പെട്ടന്ന് കഴിയും അത് കഴിഞ്ഞിട്ട് അവിടുന്നു തന്നെ ആ ആ മീറ്റവിടെ വെച്ച് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് നാ അവിടെ വെയ്റ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തിട്ട് എന്നെ കൊണ്ടോണം